കൃഷി ഇപ്പം മുന്നോട്ട് വന്നു കൊണ്ടിയിരിക്കുകയാണ് കേരളത്തിൽ എല്ലാവരും കൃഷിയിലോട്ട് അതായത് നമ്മുടെ കേരളത്തിൽ ഉള്ളോരു തന്നെ പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് പോലുള്ള ജില്ലകളെ ആശ്രയിക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഇഞ്ചി കൃഷി അതേപോലെ തന്നെ വാഴ കൃഷിയൊക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണം ഇവിടെ നിന്ന് കൂടുതലും നമുക്ക് വാഴ അതേപോലെ തെങ്ങ് നെല്ല് കുറഞ്ഞു നെല്ല് ഈ പാലക്കാട് പോലുള്ള ജില്ലകളിലൊക്കെയാണ് നെല്ല് കൂടുതലുള്ളത് വയനാട് പാലക്കാട് അങ്ങനെയുള്ള ജില്ലകളിലാണ് കൂടുതലും നെല്ലുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും നെല്ല് ഏകദേശം കുറഞ്ഞു നെല്ലിൻ്റെ ഉത്പന്നവും കുറഞ്ഞു തുടങ്ങി നമ്മൾ പുറത്ത് ആന്ധ്ര തമിഴ്നാട് ഒക്കെ പോലെയുള്ള സ്ഥലത്തിതാക്കുന്നു പക്ഷെ നമ്മൾ നല്ല നല്ല ഇത് വലുപ്പവും പിന്നെ ജിടി പോലെ സംഭാവനയും ഉത്പാദന ക്ഷമതയും പിന്നെ അത് വാങ്ങുന്ന ഇതൊക്കെ ആൾക്കാർ നല്ല നല്ല പേരിലാണ് വിളകൾ കേരളത്തിൽ എത്തിക്കാനും പിന്നെ കർഷകരെ എത്തിക്കാനും ഗവൺമെൻറ്റും കർഷിക വികസന മേഖലയിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ മറ്റു ജില്ലാ മറ്റു അതായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് ഇന്ത്യ കൃഷി പിന്നെ ഒരു കാലത്ത് നല്ല മുൻപന്തിയിൽ ഇരുന്ന പിന്നെ കേരളം പകുതി കുറച്ച് കാലം കൊണ്ട് വളരെ പുറകോട്ട് ആയ പോലെയാണ് എനിക്ക് തോന്നിട്ടുള്ളത് എൻ്റെ പേർസണൽ ഒപ്പീനിയനാണ് പക്ഷെ എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സർക്കാരും കൃഷി ഭവനിലെ ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എന്നറിയാം